നമ്മുടെ പ്രദേശങ്ങളിൽ ഒരു വർഷത്തിൽ പല പല കാലാവസ്ഥകളാണ് അവിടെ വളരുന്ന പല പല വിളകളും ആണ് നമ്മുടെ പ്രദേശത്തുള്ളത് ചക്ക മാങ്ങ റംബുട്ടാൻ കപ്പ അങ്ങനെ പല പല വിളകൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് ഇതു വേനൽ സമയത്താണ് ചക്ക മൂക്കുന്നത് അതായത് മാർച്ച് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ സമയങ്ങളിൽ മാങ്ങേ ആണെങ്കിലും വേനൽ സമയത്തുണ്ട് പിന്നെ ചെറിയ ഒരു മഴ സമയത്തുണ്ട് അതായത് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജുലൈ ഓഗസ്റ്റ് ആ ഒരു സമയങ്ങളിൽ കപ്പയെന്നു പറയുന്നത് ഒരോരോ കപ്പയ്ക്കും ഒരോരോ എത്ര കാലത്തിനുള്ളിൽ മൂക്കും എന്നാ പറയുന്നത് അങ്ങനെ പലതരം കപ്പകളുണ്ട് എട്ടു മാസത്തെ മൂപ്പ് ഒരു വർഷത്തെ മൂപ്പുള്ള കപ്പകളുണ്ട് അങ്ങനെ പലതരത്തിലുളള കപ്പകളുണ്ട് റംബുട്ടാൻ റംബുട്ടാൻ ഉണ്ടാകുന്നത് മഴ സമയത്താണ് മഴ സമയം ഏകദേശം മഴ സമയം അതായത് ജൂൺ ഈ സമയത്തൊക്കെ റംബുട്ടാൻ കഴിക്കാൻ തുടങ്ങി പഴുക്കാനല്ല കായ്ക്കാൻ തുടങ്ങി കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കിനും അത് പഴുക്കാൻ തുടങ്ങും പിന്നെ പച്ചക്കറികളെല്ലാം തന്നെ എല്ലാ സമയത്തും വിളകൾ വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ കാപ്പിക്കുരു കാപ്പിക്കുരു ഉണ്ടാകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു കാലങ്ങൾ അവസാന കാലഘട്ടത്തിലാണ് വർഷത്തിലെ അവസാന മാസങ്ങളിൽ അങ്ങനെ പലതരം വിളകൾ നമ്മുടെ ഒരു വർഷത്തിൽ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്